എൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എക്സ്പിരിയൻസായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ അതായത് അലോവേരയും മൈലാഞ്ചിയും വേവിച്ച് കാപ്പിപ്പൊടി തേയില എന്നിവ ഉപയോഗിച്ചും പിന്നെ കൂടാതെ നീലയമരി എന്നീ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ എനിക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് എല്ലാവർക്കും വളരെ നല്ല ഗുണമായിരുന്നു ഉണ്ടായിരുന്നത് മുടിയും നരയ്ക്കാൻ തുടങ്ങുന്നവർക്കും കൂടുതൽ നര ഉള്ളവർക്കും അത് വളരെ ഏറെ പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് ഒരുപാട് കമ്മൻറ്റുകൾ വന്നു